ഹലോ നമസ്കാരം എൻ്റെ പേര് ശ്രീജിത്ത് ഞാൻ കോട്ടയത്ത് വിളിക്കുകയാണ് ആര്യാസ് ടാക്സി സർവീസ് സെൻ്റർ അല്ലേ ഇത് എനിക്ക് ഫാമിലിയായിട്ട് ഈ മാസം പതിനൊന്നിന് എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം അപ്പം നിങ്ങളുടെ കാർ ബുക്ക് ചെയ്യാൻ ആണേ അപ്പോൾ കാർ എനിക്കൊരു ഒര് ആറേഴ് ആൾക്കാർ ഉണ്ടാകും ഫാമിലിയല്ലേ അപ്പോൾ അവർക്ക് പോകാൻ പറ്റിയ ഒരു കാർ വേണം ഞങ്ങള് ഇന്നവിടെ എൻ്റെ വീട്ടിൽ നിന്ന് നാലാളും അമ്മയുടെ വീട്ടിൽ നിന്ന് രണ്ടാളും ഉണ്ടാവും അങ്ങനെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും റേറ്റിംഗ് കാറിൻ്റെ എത്ര റേറ്റിംഗ് വരും രാവിലെ പോയാൽ എത്ര മണിയാവുമ്പോൾ നമുക്ക് അവിടെ എത്താം നട തുറക്കുന്ന ടൈമില് എത്തണം ദിവസവും കാര്യങ്ങളൊക്കെ എങ്ങനെ റൂട്ടും കാര്യങ്ങളൊക്കെ എത്രയോ വരണേ റൂട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരണം അതുപോലെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എത്രയാണ് അതൊക്കെ പറഞ്ഞു തരാവോ